ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഒരു ഷർട്ട് ആയിരുന്നു പറയാൻ കാരണം അത് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ തുറന്ന് നോക്കി ഞാൻ ഏത് കളർ ആണോ ഓർഡർ ചെയ്തത് അതേ കളറുതന്നെ ഫോണിൽ കാണുമ്പോൾ ഉള്ള ഭംഗിയിലേക്കാളും നന്നായിട്ട് എനിക്കത് തോന്നി ആ കളർ കറക്റ്റ് ഇഷ്ടപ്പെട്ട കളറായിരുന്നു അത് ഒരു വയലറ്റ് കളറായിട്ടുള്ള നല്ല ഭംഗിയിണ്ടായിരുന്നു വന്നിട്ട് അതിൻ്റെ ഡിസൈനാണെങ്കിലും അതിൽ ചെറിയ ചെറിയ പ്രിൻറ്റിങ് ഒക്കെ ഇണ്ടായിരുന്നു നല്ല ഡിസൈനുള്ള പ്രിൻറ്റിങ് ആയിരുന്നു പൂക്കൾ അതേപോലെ ഇലകളൊക്കെയായിട്ടുള്ള നല്ല ഡിസൈൻ ആയിട്ടുള്ള പ്രിൻറ്റിങ് ആയിരുന്നു പ്രിൻറ്റിങ് ഒന്നും പെട്ടെന്ന് അലക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നും പറ്റാത്ത ഒരു നല്ല ചന്തമുള്ള ഒരു ഡിസൈനാണ് അതേപോലെ അതിന്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ല രീതിയിൽ ഒന്ന് കണ്ട് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റിച്ചിങ്ങാണ് ഒരു വയലറ്റിൽ ബ്ലാക്കും വയലറ്റും എന്ന് പറഞ്ഞ ഒരു സ്റ്റിച്ചിങ് പോലത്തെ അത് കണ്ട് നമുക്ക് ആ സ്റ്റിച്ചിങ് ആകർഷിക്കും സ്റ്റിച്ചിങ് പോലും ആകർഷിക്കും അത്രയും നല്ല ആകർഷിക്കും അതുപോലെ ബട്ടണാന്നെങ്കിൽ കണ്ട് പറഞ്ഞാൽ ഈ പറ്റിയ ബട്ടണും ഒരു മറ്റേ പ്ലാസ്റ്റിക്കിന്റെ മറ്റേ ഈ പെട്ടെന്ന് കണ്ടാൽ ഗോൾഡ് സിൽവർ പോലത്തെ ബട്ടൺ അത്രയും നല്ല ഭംഗിയുള്ള ബട്ടണായിരുന്നു അത് കല്യാണത്തിനൊക്കെ ഫങ്ഷനും അതേപോലുള്ള കാര്യത്തിനൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയ ഒരു ഷാർട്ടാണത്